പാട്ട് ഇപ്പം ഞങ്ങൾ സ്കൂൾ ജീവിതത്തെ പോലെ പറ്റില്ലല്ലോ ഇപ്പം ഞങ്ങൾ കുടുംബ ജീവിതം ആയതുകൊണ്ട് അതിൻ്റെ ഇടയ്ക്കും ഞങ്ങൾ പാട്ടിന് വേണ്ടി ഞാൻ പാട്ടൊക്കെ ഇടയ്ക്കൊക്കെ പാടും പിള്ളേരൊക്കെ സ്കൂളിൽ പോയി കഴിയുമ്പോഴത്തേക്കിനും ഒക്കെ ഞാൻ പാട്ട് പാടും റേഡിയോയിലൊക്കെ ഞാൻ പാട്ട് കേൾക്കും ഇപ്പോഴും പിന്നെ ഞായറാഴ്ച്ച ആണെങ്കിലും അവധി ദിവസം ആണല്ലോ അപ്പോഴത്തേക്കിന് ആണെങ്കിലും കുട്ടികളും കുഞ്ഞ് മക്കളും കൂടെ എൻ്റെ കൂടെ പാടാൻ ഒക്കെ ഉണ്ട് ഞാൻ എവിടെ പാട്ട് കേട്ടാലും ഞാനും പാടും പിന്നെ പണ്ടത്തെ പോലെ ജീവിതത്തിന് ജോലി ജോലിക്കൊക്കെ പോകും ജോലി ഒക്കെ നേരത്തെ ഉണ്ടായിരുന്നു ഇപ്പം ജോലി ഇല്ല ഇപ്പോൾ വീട്ടിൽ തനിയെ ആണ് ഞാൻ ഇപ്പോൾ അപ്പം പാട്ട് ഒക്കെ ഞാൻ പാടുന്നുണ്ട് പിന്നെ അവിടെ പാ പള്ളിയിലൊക്കെ ആണെങ്കിലും കൊയറിലൊക്കെ പോവും ഞായറാഴ്ച്ച ആവുമ്പോഴത്തേക്കിനും ഇട ദിവസമൊക്കെ ഞങ്ങൾ സമയം കണ്ടെത്തി ഞങ്ങളുടെ കൂട്ടായ്മയിലും ഒക്കെ പ്രാക്ടിസിനും പരു പരിപാടികളൊക്കെ ഉണ്ട് അപ്പം അതിന് വേണ്ടി പാട്ടിനൊക്കെ ഞങ്ങൾ പോകാറുണ്ട് പാട്ട് കേൾക്കാറുണ്ട് എവിടെ പാട്ട് കേട്ടാലും ഞാൻ പാടും എനിക്ക് ഇഷ്ടമാണ് പാട്ടിനോട് അങ്ങനെ ഒക്കെ പോകുന്നു പിന്നെ സ്കൂളിലും കോളേജിലൊക്കെ പാടിയത് പോലെ ഒന്നും പറ്റില്ലല്ലോ ഇപ്പം നമ്മൾ പ്രായമായി അതിനോട് അത്ര വരില്ല എങ്കിലും ഞാൻ പാട്ടുകളോടുള്ള കമ്പം എനിക്കുണ്ട് ഇപ്പോഴും പിന്നെ ഇനിയും മുന്നോട്ട് ആണെങ്കിലും എനിക്ക് പാട്ട് ഇഷ്ടമാണ് ഞാൻ പാട്ട് പാടും